ഹലോ ഹലോ അതെ പറഞ്ഞോളൂ ഓക്കെ ആയിക്കോട്ടെ എവിടുന്നാണ് വരുന്നത് ആയിക്കോട്ടെ ഓക്കെ മാഡം ഒരു മിനിമം റെന്റ് ഹൗസിംഗ് ലോണ് ഇപ്പോൾ ആ ആ ഉണ്ട് മാഡം ഒരു ടെൻത്ത് മാഡത്തിന് എത്ര നാളത്തേക്ക് ആണ് ഹൗസ് വേണ്ടത് ഓക്കെ വൺ ഇയർ അല്ലേ ഓക്കെ വൺ ഇയറിലേക്ക് ആണ് അല്ലേ ആ ഓക്കെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ മാഡം ബഡ്ജറ്റ് ഒക്കെ എങ്ങനെ ആണ് ടെൻ തൗസൻഡ് ഒക്കെ വെച്ച് മന്ത്ലി പേയ്മെന്റ് ചെയ്യാവോ അല്ലേ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ സെക്യൂരിറ്റി പേയ്മെന്റ് ആയിട്ട് ഒരു തെർട്ടീൻ തെർട്ടീൻ തൗസൻഡ് ഒക്കെ പേയ്മെന്റ് ചെയ്യേണ്ടി വരും ദെൻ മന്ത്ലി ഒരു ടെൻ തൗസൻഡ് ഒക്കെ വച്ചിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് റെന്റും കാര്യങ്ങളും വരും സ്കൂളുണ്ട് കോഴിക്കോട് ടൗണ് തന്നെ നമുക്ക് ഉണ്ട് ഓൾമോസ്റ്റ് ടെൻ മിനിറ്റ്സ് കൊണ്ട് ഹോസ്പിറ്റല് സ്കൂള് എല്ലാം തന്നെ അടുത്ത് വരുന്ന ടൈപ്പ് ഹൗസ് നമുക്ക് ഇപ്പോൾ ഉണ്ട് ഓക്കെ നമുക്ക് ഇപ്പോൾ അധികം ടൗൺ ഏരിയ തന്നെ വരുന്ന ഒരുപാട് വീടുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ മാഡത്തിന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഉള്ള വീടുകളിലൊക്കെ ഫോട്ടോസ് ഒന്ന് ഈ നമ്പറില് വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം മാഡം അതിനകത്ത് ഏത് ആണ് മാഡത്തിന് ബെറ്റർ ആയിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ മാഡം ഒന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് തന്നാൽ മതി നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് മാഡത്തിന് ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്ത്തരാം അപ്പോൾ മാഡം അത് ചെക്ക് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി നമുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് നമുക്ക് ചെയ്തെരാൻ കഴിയും ഓക്കെ ആയിക്കോട്ടെ എന്തായാലും ഞാൻ നോക്കീട്ട് മാഡത്തിന് വാട്ട്സ്ആപ്പ് ചെയ്തെരാ എന്നിട്ട് അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മാഡം ചൂസ് ചെയ്തിട്ട് നമ്മളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ റെന്റും കാര്യങ്ങളും എല്ലാം ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ടെൻ തൗസൻഡിൻ്റെ ഉള്ളിൽ ഉള്ളത് ഒക്കെ ഞാൻ അയച്ചെരാം മാഡം ഏതാന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി അതിന് അനുസരിച്ച് നമുക്ക് ചെയ്തെരാൻ കഴിയും ഓക്കെ എന്തായാലും മാഡം അത് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കൂടി പറയൂട്ടോ ഞാൻ എന്തായാലും വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം ഓക്കെ മാഡം